ഇപ്പോൾ ഈ അടുത്ത് കേരളത്തിൽ സംഭവിക്കുന്ന വാർത്തകൾ എല്ലാം ഭയങ്കര വിചിത്രമായ വാർത്തകളാണ് മനുഷ്യന് ഒരിക്കലും സംഭവിക്കരുത് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ച് കൊണ്ടിരിക്കുന്നത് കൊല്ലുന്നവന് അറിയില്ല എന്തിനാ കൊല്ലുന്നത് എന്ന് കൊല്ലപ്പെട്ടവന് അറിയില്ല എന്തിനാ കൊല്ലപ്പെടുന്നത് എന്ന് അതുപോലെ വളരെ കുഞ്ഞു കുട്ടികളെ ഒക്കെ ഉപേക്ഷിക്കുക അവരെയൊക്കെ അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടി കൊല്ലുക നരബലി ഉണ്ടാവുക ഇതൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്ന് കൊണ്ടിരിക്കുന്ന സംഭവങ്ങള് അതുപോലെ തന്നെ ആദിവാസി യുവാവ് ഒരു വീട്ടില് ഭക്ഷണത്തിന് വേണ്ടി ചെന്ന് ഭക്ഷണത്തിന് വേണ്ടി കുറച്ച് അരിയും സാധനങ്ങളും ഒക്കെ എടുത്തതിന് എടുത്തതിന് പകരമായിട്ട് അവിടുത്തെ നാട്ടുകാരെല്ലാം ഇവരെ ശിക്ഷിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഒരു അൽപ്പം ഭക്ഷണത്തിന് മിൻ അൽപ്പം വിശപ്പ് അകറ്റാൻ വേണ്ടി മറ്റൊരു വീട്ടില് കക്കാൻ പോകേണ്ട അവസ്ഥ ഉണ്ടാകുന്നത് തന്നെ വളരെ പരിതാപകരമാണ് അതും കൂടാതെ തന്നെ അതിന് വേണ്ടി അത് ചെയ്തതിന് പകരമായിട്ട് ആ നാട്ടുകാര് കെട്ടിയിട്ട് തല്ലുക എന്ന് പറയുന്നത് അതിലും വലിയ പരിതാപകരമായ അവസ്ഥയാണ് ഇതൊക്കെയാണ് കേരളത്തിൽ നടന്ന് കൊണ്ടിരിക്കുന്നത് സ്വന്തം മകൻ അച്ഛനെ വധിക്കുക അച്ഛൻ മക്കളെ കൊല്ലുക അങ്ങനെ വളരെ വിചിത്രമായ കാര്യങ്ങളാണ് നടന്ന് കൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് എന്നെ ആകർഷിച്ച അല്ലെങ്കിൽ എനിക്ക് അത്ഭുതപ്പെടുത്തുന്ന കേരളത്തിലെ വാർത്തകൾ എന്ന് പറയുന്നത്